മലയാള സിനിമയില് കുറേ ഗാനങ്ങളുണ്ട് ഞാൻ ബന്ധുക്കാരുടെയൊപ്പം കൂട്ടുകാരുടെയൊപ്പം ഒക്കെ പല ഒക്കേഷനിലും ഡാന്സ് കളിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വളരേ നന്നായിട്ടറിയാം ഏതൊക്കെ പാട്ടുകളായിരിക്കാം നമുക്ക് ഡാന്സ് ചെയ്യാന് സജസ്റ്റ് പറയാൻ പറ്റുന്നതെന്ന് മലയാളത്തിലെ ഒരു സിനിമയാണൊരു സൂപ്പര് ശരണ്യ നല്ലൊരു ഹിറ്റായൊരു സിനിമയാണ് അതിലൊരു പാട്ടുണ്ട് അശുഭമംഗളകാരിയെന്ന് പറഞ്ഞിട്ട് അത് നല്ലൊരു ഗാനമാണ് നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ആര് ഡി എക്സ് എന്നു പറഞ്ഞൊരു സിനിമയുണ്ട് ഷൈന് നിഗമാണ് അതിന്റെ മെയിന് ക്യാരക്റ്ററ് ആളുടെ സിനിമയിലെ ഒരു പാട്ടാണ് നീല നിലവെ ആ പാട്ട് വളരെയധികം ഹിറ്റായൊരു പാട്ടാണ് അത് നമുക്ക് ഡാന്സ് ചെയ്യാന് പറ്റുന്ന രീതിയിലുള്ളൊരു പാട്ടാണ് പിന്നെ കലാപക്കാരാ എന്നു പറഞ്ഞ പാട്ട് അതും നന്നായിട്ട് ഡാന്സ് കളിക്കാനായാലും പാടാനായാലും അടിപൊളിയായ ഈയൊരു പാട്ടാണ് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ചം ചം ചം അത് മല്ലൂസിങ്ങെന്ന് പറഞ്ഞ ഒരു പടത്തിലത്തെ പാട്ടാണ് അതിൽ ഉണ്ണിമുകുന്ദന് എന്ന വ്യക്തിയാണ് നായകനായിട്ട് വരുന്നത് പിന്നെ നമുക്ക് പണ്ടത്തെയൊരു പാട്ടുണ്ട് പതിനാലാം രാവിന്റെ അതും ഡാന്സ് കളിക്കാൻ പറ്റുന്നൊരു പാട്ടാണ് പിന്നെ പവിഴമലര് പെങ്കൊടി ആ പാട്ടും വണ് മാന് ഷോയെന്ന് പറഞ്ഞ പടത്തിലത്തെ പാട്ടാണ് അതും ഡാന്സ് കളിക്കാന് പറ്റിയ നൃത്തത്തിന് പറ്റിയ അനുയോജ്യമായൊരു സംഗീതമാണ് അത് പിന്നെ ചക്കരമാവിന്റെ അത് അത്ഭുതദ്വീപ് എന്നു പറഞ്ഞ മമ്മൂക്കയുടെ ഒരു സിനിമയിലത്തെ പാട്ടാണ് ചക്കരമാവിന്റെ അതും ഡാന്സ് കളിക്കാന് അല്ലെങ്കിൽ നൃത്തം ചെയ്യാൻ പറ്റിയൊരു സംഗീതമാണ്